ഹലോ ഇന്ത്യൻ റസ്റ്റോറൻ്റ് അല്ലേ മാനന്തവാടി ഓക്കെ ഞാൻ കുറച്ച് ഫുഡ്ഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഒരു പന്ത്രണ്ടരയൊക്കെ ആവുമ്പോഴത്തേക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു ആ പത്ത് കിലോമീറ്റർ പരിധി തന്നെ ഞങ്ങളിവിടെ പാണ്ടിക്കടവെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് സാധനം കിട്ടണം അതിനു വേണ്ടിയായിരുന്നു ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിലൊരു മൂന്ന് ചിക്കൻ ബിരിയാണിയും രണ്ട് ഫിഷ് ബിരിയാണിയും പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ആ അതൊക്കെയുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് ഓറഞ്ച് ജ്യൂസും ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെയെന്താ പിന്നേ അനാറല്ലേ ആ അനാർ ജ്യൂസും അതൊന്ന് കൊണ്ടുവരണം ഞാൻ ഈ അഡ്രസ്സ് പറയാം ആ സ്വപ്ന കെ പുറക്കാടി ഹൗസ് കിള്ളൂർ പി ഒ ആ മാനന്തവാടി ഓക്കെ തേങ്ക്സ്